വായന മനുഷ്യനെ പൂർണനാക്കുന്നു എന്നാണ് പറയാറുളളത് വായന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറിവിൻ്റെ വെളിച്ചം വിതറി ചിന്തയെ ജ്വലിപ്പിക്കുന്ന ഒന്നുതന്നെയാണ് പുസ്തകങ്ങൾ ജീവിതത്തോട് ചേർത്ത്വെച്ചിട്ടോണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെയുണ്ടാകും പുസ്തകങ്ങൾ ഏറ്റോം കൂടുതൽ ഞാൻ വാങ്ങുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ദേവി ബുക്സ് എന്നുള്ള കടയിൽ നിന്നാണ് മറ്റുള്ളവർ വാങ്ങി തരുന്നതും നമ്മുടെ കൂടെയുള്ളവരൊക്കെ വാങ്ങി തരുന്ന പുസ്തകങ്ങളും അതുപോലെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങുന്നതുമായ പുസ്തകങ്ങൾ അങ്ങനെ ഒരു കൊച്ച് ലൈബ്രറി തന്നെ വീട്ടിൽ ഉണ്ട് പ്രധാനമായിട്ടും ചില വിശേഷദിവസങ്ങളിലൊക്കെ ഭാര്യയും മകളുമൊക്കെ പുസ്തകളൊക്കെ വാങ്ങി തരാറുണ്ട് കൂടുതൽ പുസ്തകങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റോം അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത് പിന്നീട് നമുക്ക് ഈ ഓരോ പബ്ലിഷേഴ്സിന്റെയും പുസ്തകമേളകളൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ പുസ്തകമേളകളൊക്കെ നടക്കുമ്പോൾ അവിടെനിന്നും പുസ്തകങ്ങൾ വാങ്ങാറുണ്ട് അത് വിലകുറഞ്ഞ് ലഭിക്കാറുമുണ്ട് ഡിസ്കൌണ്ട് വ്യവസ്ഥയിലോക്കെ ലഭിക്കാറുമുണ്ട് അങ്ങനെ തൊട്ടടുത്ത് ലഭ്യമാവുന്ന കടകളിൽ നിന്നും അതുകൂടാതെ നമ്മുടെ ഈ മേളകളിൽ നിന്നുമൊക്കെയാണ് പുസ്തകങ്ങൾ വാങ്ങാറുള്ളത് ഈ സെക്കൻഹാൻഡ് പുസ്തകങ്ങൾ ലഭിക്കുന്ന കടകൾ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഉള്ളത്